ഹലോ ആരാണ് ഹലോ ആ പറഞ്ഞോളൂ ആ അതെ അതെ പറഞ്ഞോളൂ പൂച്ചയോ ആ ഏതാണ് ബ്രീഡ് ഏതാണ് ഓ ഓക്കെ ആ ആ ഇപ്പോൾ കോട്ട് കോട്ട് ഉള്ളത് ആണോ രോമം ഉള്ളതാണോ ആ ഇത് എത്ര വരുന്നത് രണ്ട് മാസം പ്രസവിച്ചിട്ട് രണ്ട് മാസം എന്നാണോ അല്ല നിങ്ങൾ എടുത്തിട്ടോ ആ ഓക്കെ ഓക്കെ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വിളിച്ചതാണ് ആ ഇനി ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ അതിന് ഇത് സൂചി വയ്ക്കാനാവും വാക്സിൻ്റെ വാക്സിനേഷൻ കൊടുക്കാനാവും ആ അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് വന്നോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് വന്നോ പെഡിഗ്രി പെഡിഗ്രി കൊടുത്താൽ മതി വലിയ കുഴപ്പമില്ല ഇപ്പോൾ നല്ല പാൽ കൊടുക്കുന്നത് ആയിരിക്കും നല്ലത് അത് സെപ്പറേറ്റ് പാലാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ ചോദിച്ചാൽ കിട്ടും ഹോസ്പിറ്റല് വന്ന് ചോദിച്ചാൽ കിട്ടും ആ പിന്നെ ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ പെഡിഗ്രി കൊടുക്കുവാനുള്ള ടൈമായിട്ടുണ്ടാവും അപ്പം അത് കൊടുത്താൽ മതി പിന്നെ കോട്ട് ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ഷാംപൂ ഉണ്ട് അത് ഷാംപൂ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി പിന്നെ ഈ ചെള്ള് അത് പോലുള്ള കാര്യങ്ങൾ ഒന്നും വരാതെ ശ്രദ്ധിക്കണം ഓക്കെ

ആ അതെ അതെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആ ഓക്കെ ശരി